ഞാൻ ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഒരു നെക്ലെയ്സ് ഒരു ഞാൻ ഓഡറ് ചെയ്തത് ഒരു ഗ്രീൻ കളറ് നെക്ലെസ് ആയിരുന്നു അപ്പം അത് എൻ്റെ ഇതേപോലെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അതായത് അതിനകത്ത് ഡെലിവെറി ടൈം കാണിച്ചത് രണ്ട് ദിവസത്തിനകം ഡെലിവെറി ടൈം കിട്ടും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ബുക്ക് ചെയ്തതാണ് ഈ ഒരു നെക്ലെയ്സ് ഇപ്പം ഞാൻ ഓഡർ ചെയ്തത് ഗ്രീൻ കളറ് നെക്ലെയ്സ് ആയിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ആ കളറെ അല്ലായിരുന്നു ബ്ലാക്ക് കളറൊരു ആയിട്ടായിരുന്നു എനിക്ക് കിട്ടിയത് പിന്നീട് അപ്പോൾ ഞാൻ ഞാൻ ഓർഡെർ ചെയ്ത സാധനമല്ല എനിക്ക് കിട്ടിയത് ആ കളറ് എന്ത് കളറായിരുന്നു ആ ഇത് സെയിം ആയിരുന്നു പക്ഷെ കളറ് വ്യത്യസ്തമായിരുന്നു അങ്ങനെ അപ്പം എനിക്ക് വേണ്ടത് ഗ്രീൻ കളർ ആയിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു ഞാനത് തിരികെ കൊടുത്താലോ എന്ന് വിചാരിച്ച് റിട്ടേൺ ഓപ്ഷൻ നോക്കി പക്ഷെ അതാ ആ ഒരു പ്രൊഡക്റ്റിന് റിട്ടേൺ റിട്ടേൺ ഓപ്ഷൻ ഇല്ലായിരുന്നു പിന്നെ വേറൊ ഒരു വഴിയില്ലാതെ അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു കാണാൻ ഓക്കെ നല്ല കുഴപ്പം ഒന്നും ഇല്ല നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു പക്ഷെ അത് ഒരു ഒരു ഒരു പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചുള്ളൂ ആ കല്യാണ ഫങ്ഷന് ഉപയോഗിച്ചതാ ആ ആ ഉപയോഗിച്ച് അതുകഴിഞ്ഞ് അടുത്തദിവസം ആയപ്പഴത്തേക്കും അതിൻ്റെ കളറ് അതായത് കളറും പോയി അതിനകത്തെ കല്ലും ഒക്കെ കല്ലും രണ്ട് മൂന്നെണ്ണം ഇളകിയും പോയി ഒരു ഒറ്റ യൂസെ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു പക്ഷെ ആ ഒരു ആ ഒരു ഉപയോഗത്തിൽത്തന്നെ അതിൻ്റെ കോളിറ്റി എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അതിൽ നോക്കുമ്പം പ്രോഡക്റ്റ് ഞാൻ ഒൺലൈൻ സൈറ്റിൽ നോക്കുമ്പോൾ അതിന് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു വാങ്ങിച്ചവരൊക്കെ നല്ല റിവ്യു ആണ് ഇട്ടേക്കുന്നത് അങ്ങനെ കണ്ടിട്ട് കണ്ടത് കൊണ്ടും പിന്നെ അതെപോലെ എനിക്ക് പെട്ടെന്ന് സാധനം വേണമാവായിരുന്നു അതുകൊണ്ടുമാണ് ഞാനാ അവരെ ഇത് ഓഡർ ചെയ്തത് സംഭവം പറഞ്ഞ ആ ഡെലിവെറി ടൈമിൽത്തന്നെ അത് കിട്ടി രണ്ട് ദിവസത്തിനകം തന്നെ കിട്ടി പക്ഷെ ഇതേപോലെ അതിൻ്റെ കളറും വ്യത്യസ്തമായിരുന്നു പക്ഷെ അതിനി ഞാൻ തിരികെ കൊടുക്കാൻ നോക്കിയപ്പൊൾ അതിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ശരി എന്നാൽ അത് ഞാൻ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് പക്ഷെ ആ ഫസ്റ്റ് യൂസിൽത്തന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ ഇതേപോലെ അതിൻ്റെ കളറ് പോവുകയും അതിനകത്തെ ആ കല്ല് അതക്കെ പോവുകയും ചെയ്തു അതിൻ്റെ കൊളുത്ത് കൊളുത്തൊക്കെ ആദ്യമേ പ്രശ്നമായിരുന്നു അത് പിന്നെ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കുകയായിരുന്നു പക്ഷെ ആ ആ ഒരു ആ ഒരു ഒറ്റ യൂസ് കഴിഞ്ഞപ്പത്തേക്കും അതിൻ്റെ അത് അതിൻ്റെ കാര്യം തീരുമാനമായി പിന്നെ അത് ഞാൻ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല